ആ ഇത് മലബാർ ഹോട്ടലിലെ കുക്കല്ലേ ആ ഞാന് കോഴിക്കോട് ഉള്ള ഒരു ട്രാവലറാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളില് യാത്ര ചെയ്തിട്ട് ഒരുപാട് ഭക്ഷണങ്ങള് ടേസ്റ്റ് ചെയ്തിട്ടും ഉണ്ട് പക്ഷെ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഞാൻ ഒരു കല്ലുമ്മക്കായ് ബിരിയാണി ടേസ്റ്റ് ചെയ്തു ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ആ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ അവിടെയുള്ള ആളെ അടുത്തുന്ന് നിങ്ങളുടെ നമ്പർ വാങ്ങിച്ചിട്ട് വിളിക്കുന്നത് ആണ് ഞാൻ ഓക്കെ ഓക്കെ ഓ ആ ഓക്കെ ആ ഞാൻ ഇത്രയും നല്ല ഒരു ഇത്രയും ടേസ്റ്റുള്ള ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടേ ഇല്ല ബിരിയാണി കഴിച്ചിട്ടില്ല പ്രത്യേകിച്ച് കല്ലുമ്മക്കായീടെ ആ ഒരു മസാല ഒക്കെ നല്ല അടിപൊളി ആയിട്ട് ഉണ്ട് അതിൻ്റെ റെസിപ്പീ പറഞ്ഞ് ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടോ അതോ

ഓ ഓക്കെ ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലാവും ആ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു ചെറിയ കുക്കും കൂടി ആണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ആണ് ഓക്കെ ആ ഓക്കെ കോക്ടെ ആ നിങ്ങളുടെ സ്പെഷ്യൽ കോക്ടെയ്ൽ ആണ് എന്ന് തോന്നുന്നു അല്ലേ

ഓക്കെ ആ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കോക്ടെയ്ലും ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് കല്ലുമ്മക്കായ ബിരിയാണി എടുത്ത് പറയേണ്ട ഒന്ന് ആണ് അത് ഓക്കെ ആ ഹാ ഓക്കെ ഞാൻ ഇനി എന്തായാലും കണ്ണൂരില് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും അവിടെ കയറിയിട്ടേ പോകുള്ളൂ ആ ആ ഓക്കെ താങ്ക്യൂ